ഇപ്പോൾ പാചകം ഒരു വിനോദ വൃത്തിയായിട്ട് ആരെങ്കിലും എടുക്കണമെങ്കിൽ അവർക്കാദ്യം പാചകം എങ്ങനെ അതായത് നല്ലവണ്ണം പാചകത്തിന് നല്ല ഇത് വേണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാചകമെങ്ങനെ നല്ലവണ്ണം ഉണ്ടാക്കുന്നതെന്നും അങ്ങനെ ഒക്കെ പഠിക്കണം അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും അതിനോടൊക്കെ ഇൻറ്ററെസ്റ്റ് ഉണ്ടാവുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ബാധ്യത ആയിട്ട് എടുക്കുന്നവരുണ്ടാവും അവർക്കൊന്നും ഒരിക്കലും അങ്ങനെ എന്താണ് വെച്ചാൽ പാചകമൊന്നും ആ ഒരു രീതിയിൽ പിന്നെ അതായത് പിന്നെ വിനോദവൃത്തിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ചിലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അതായത് കഷ്ടപ്പെട്ട് എണീറ്റ് രാവിലെ എണീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി ജോലിക്ക് പോകുന്നവരുണ്ടാവും അവർക്കൊന്നും ഒരിക്കലും എന്തായാലും ആ ഒരു മൈൻഡിൽ ഉണ്ടാവില്ല മൈൻഡ്സെറ്റ് ഉണ്ടാവില്ല പക്ഷേ ആ സ്ഥാനത്തിപ്പോൾ അതായത് വീട്ടുപണി മാത്രം നോക്കി നടക്കുന്ന ഹൗസ്വൈഫ് അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ അത് വിനോദവൃത്തിയായിട്ട് എടുക്കുവാണെങ്കിൽ അവരെ സമയം പോകാനും ഒക്കെ നല്ലതാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ നല്ലൊരു അഭിപ്രായം പറയുമ്പം തന്നെ ഒരു നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ നല്ലതാണ് എന്തായാലും അതായത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പാചകം ഒരു വിനോദവൃത്തിയായിട്ട് എടുക്കാൻ പറ്റും